ഞാനങ്ങനെ അധികം ബൈക്ക് റേസിങ് കാണാന് പോകാറില്ല പക്ഷേ ഒരു തവണ തൃശ്ശൂര് വന്നിരുന്നപ്പോള് പോയിട്ടുണ്ടായിരുന്നു അന്ന് തൃശൂരില് കുട്ടികളുടെ ഉണ്ടായിരുന്നു അങ്ങനെ അറിഞ്ഞപ്പോഴാണ് പോയത് അപ്പോള് വളരെ നല്ല അനുഭവമായിരുന്നു കാരണം അത് ഒരുപാട് നമ്മള് എൻജോയ് ചെയ്തു കുഞ്ഞു മക്കളുടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വിദേശത്തുനിന്ന് വന്ന ആളുകളുടേതായിരുന്നു മെയിനായിട്ട് അവരുടേതായിരുന്നു ബൈക്ക് റേസിങ് പിന്നെ കുട്ടികളുടേതുണ്ടായിരുന്നു അതില് വിദേശ ബൈക്ക് റൈഡേഴ്സിൻ്റേതായിരുന്നു അവരുടെ റേയ്സിങ് ആയിരുന്നു അത് അത് തൃശ്ശൂര് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത് അവര് തൃശ്ശൂര് ഫെസ്റ്റിവല് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവര് സംഘടിപ്പിച്ചതായിരുന്നു ഈ ബൈക്ക് റേസിങ് അതില് മെയിനായിട്ട് ഒരു ഓസ്ട്രീയൻ താരമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സെബാസ്റ്റ്യന് എന്നാണ് അയാളുടെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഓസ്ട്രീയൻ താരം ഉണ്ടായിരുന്നു പിന്നെയൊരു ഫിൻലാൻഡ് താരം അവരായിരുന്നു അതിൻ്റെ മെയിൻ ആളുകളെന്ന് പറഞ്ഞത് അവര് രണ്ട് പേരുമായിരുന്നു ഒരു ഓസ്ട്രീയൻ താരവും ഫിൻലാൻഡ് താരവും അവരായിരുന്നു അതിൻ്റെ മെയിൻ അത് ഒമ്പത് ഇനങ്ങളിലായിട്ടായിരുന്നു ആ മത്സരം സംഘടിപ്പിച്ചിരുന്നത് പിന്നെ കുട്ടികൾക്കായിട്ടുള്ള മത്സരങ്ങളുമുണ്ടായിരുന്നു കുട്ടികള് വളരെ കുഞ്ഞു മക്കള് പങ്കെടുത്തിരുന്ന മത്സരങ്ങള് അതൊക്കെ നമുക്ക് വളരെയധികം നമുക്കവിടെ തന്നെ കണ്ടുകൊണ്ടിരിക്കാന് തോന്നുന്ന തരത്തിലുള്ള മക്കളുടെ പ്രകടനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതുപോലെ ഈ വിദേശത്തുനിന്ന് വന്നവരുടെ ഈ ഓസ്ട്രിയൻ താരത്തിൻ്റെയും ഫിൻലാൻഡ് താരത്തിൻ്റെയുമൊക്കെ വളരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ബൈക്ക് റേസിങ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയൊന്ന് കാണാൻ പോകുന്നത് നമുക്കതിൻ്റെ ഇത് എത്രത്തോളമാണെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു കാരണം നമുക്കതിന് താല്പര്യം തോന്നുമോയെന്നുള്ളത് അറിയില്ലായിരുന്നു പക്ഷെ കുട്ടികളുടെയൊക്കെ ഉണ്ടെന്നറിഞ്ഞപ്പോഴാണ് ഞങ്ങള് അങ്ങോട്ട് പോകുന്നത് പക്ഷെ എനിക്കൊരുപാട് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു റേസിങ് തന്നെയായിരുന്നു അത് നമുക്കൊട്ടും മടുപ്പ് തോന്നിക്കാത്ത വിധത്തിലായിരുന്നു ഓരോ പ്രകടനങ്ങളും നമുക്ക് അത്രയുമേറെ നമുക്ക് താല്പര്യം തോന്നിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അവിടുത്തെ ബൈക്ക് റേയ്സിങ് എന്നുപറയുന്നത് നമുക്ക് കുട്ടികളുടെയായാലും വലിയവരുടെയായാലും ബൈക്ക് റേയ്സിങ്ങ് വളരെ നല്ലയൊരു അനുഭവം തന്നയൊരു കാര്യം തന്നെയായിരുന്നു അത് തൃശ്ശൂര് ബൈക്കോട്ടയെന്ന് പറഞ്ഞത് സംഘടിപ്പിച്ചതായിരുന്നു അത് ആ ബൈക്ക് റേസിങ് നല്ലയൊരു അനുഭവമായിരുന്നു